സിനിമാ രാത്രികളോടുള്ള സിനിമാ രാത്രികളോടുള്ള എൻ്റെ വിവരണം എന്ന് പറയുന്നത് സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പലതരത്തിൽ ചിലത് പറയുമ്പോൾ എനിക്ക് അല്ല ചിലത് എനിക്ക് കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നാറുണ്ട് കാരണം തുടക്കം കാണുമ്പോഴേ മനസ്സിലാകും ഇനി ഇങ്ങോട്ടാണ് ഇനി ആ ഒരു കഥയുടെ ഒരു ഇത് ചിലത് കാണുമ്പോൾ വളരെ വളരെയധികം മടുപ്പ് തോന്നിക്കുന്നുണ്ട് എന്നാൽ രാത്രികളിൽ സിനിമ കാണുന്നിടത്തോളം പകൽ സിനിമ കാണുന്നതാണ് സിനിമെ എന്ന് പറയുന്നത് എനിക്കൊരു ക്രൈസ് ആണ് എന്നാലും രാത്രിയും കാണുന്നത് ഇഷ്ടമാണ് പിന്നെ സിനിമ വിഭാഗങ്ങളോടുള്ള ഒരു സ്നേഹപരാമർശം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം എനിക്കിഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് സിനിമ കാണുക എന്ന് പറയുമ്പോൾ സിനിമ കാണുക എന്ന് പറയുമ്പോൾ അതിലെ ഓരോ ഡയലോഗ്സ് ആയിരിക്കും അതൊന്നും വിടാതെ ഞാൻ കാണാറുണ്ട് കാരണം ഡയലോഗ് മുറിഞ്ഞു പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സിനിമയെ ഇഷ്ടപ്പെടുന്നവരെ അത് കറക്റ്റായിട്ടും അതിൻ്റെ ആ തുടങ്ങം തൊട്ടുള്ള ടൈറ്റില് വരെ കാണാൻ ശ്രമിക്കുന്നവരുണ്ട് ഞാൻ പക്ഷേ ടൈറ്റ്ലൊന്നും കാണാറില്ല ടൈറ്റില് മാക്സിമം ഓടിച്ചു വിട്ടിട്ടാണ് ഞാൻ കാണാറുള്ളത് പിന്നെ ചിലത് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നതിലൊരു ഇത് തോന്നാറുണ്ട് എത് സിനിമ കാണും കൂടുതൽ എനിക്ക് കോമഡി ആയിട്ടുള്ള പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ കാണാനാണ് ഇഷ്ടം അതാവുമ്പോൾ നല്ല കോമഡികൾ ഒരുപാടുണ്ടെങ്കിൽ നല്ല ഇതാണ് നമുക്കത് എത്ര നേരം എന്ന് പറഞ്ഞാലും നമ്മൾ കുറേ നേരം നമ്മളത് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന് പോകും അപ്പം അതുപോലെത്തെ കോമഡി ആൻ്റ് ഫാമിലി റിലേറ്റഡ് ഫാമിലിയോടൊപ്പം കാണാൻ പറ്റുന്ന നല്ല സിനിമകൾ കാണുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത് പിന്നെ ഒരു ധർമ്മസങ്കടം എന്ന് പറയുമ്പോൾ ചിലത് പിന്നെ തിരഞ്ഞെടുക്കാനൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറുണ്ട് എന്നാൽ തന്നെ കൂടുതലും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോഴേക്കും പണ്ടത്തെ സിനിമേക്കാൾ ഒരുപാട് മാറ്റി ഇപ്പം പാട്ടുകളായാലും വളരെയധികം ചുരുങ്ങി ഇപ്പം പഴയ പാട്ടുകളല്ല പുതിയ പാട്ടുകൾ ഇപ്പോഴെത്തെ എല്ലാം നമ്മൾ വെറുതെ നമ്മുടെ വായിൽ തോന്നുന്ന പറയുന്ന കൂട്ടുള്ള ടൈപ്പുള്ള പാട്ടുകളാണ് ചിലത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ പണ്ടെത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ് അതിൽത്തെ നല്ല പാട്ടുകൾ നല്ല പോലെ ആക്കണം എന്നും പിന്നെ എന്താണ് ഒരുപാട് പണ്ടത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓരോ പാട്ടിനും ഓരോ ഡാൻസ് വീതം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഡാൻസിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല അവരുടെ ഓരോ സിറ്റുവേഷനും ഇപ്പം എന്ത് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷന് അനുസരിച്ചുള്ള ഒരു സോങായിരിക്കും അതിനകത്ത് കാണിക്കുന്നത് അതുപോലെത്തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം പണ്ടത്തെ സിനിമകളെ വെച്ച് ഇപ്പോഴത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പം അതിനാൽ തന്നെ എൻ്റെ ശുപാർശ എന്ന് പറയുമ്പോൾ നല്ല നല്ല സിനിമകൾ വരുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇപ്പം പുത്തൻ ഗായകരാണ് പുത്തൻ നായകമാരും നായകന്മാരുമാണ് കടന്ന് വരുന്നത് അതിനോടൊക്കെ നല്ല രീതിക്കുള്ള സിനിമയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്